ഈ പ്രതിമ ഉണ്ടാക്കാൻ കൂടിയിട്ടുണ്ട് വൈക്കോൽ ഒക്കെ കൊണ്ടുവെച്ച് പിന്നെ ഷർട്ട് ഇട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പിന്നെ വൈക്കോല് നമ്മളിങ്ങനെ വൈക്കോല് ചട്ടി പിന്നെ സാധനങ്ങളൊക്കെ വെച്ച് അതിൻ്റെ ഉള്ളില് നമ്മുടെ ഇതുണ്ട് വൈക്കോൽ പറയും ഈ നെല്ലില്ലേ നെല്ലിൻ്റെ ഇത് അതിൻ്റെ ഇത് എന്താ പറയുക നെല്ല് കഴിഞ്ഞിട്ടുള്ള ഇല പോലത്തെ സംഭവത്തിന് വൈക്കോല് അത് നമ്മൾ ഇങ്ങനെ ആ ഷർട്ടിൻ്റെ ഉള്ളിൽ കയറ്റി വെക്കും എന്നിട്ട് പിന്നെ പാന്റ് പാന്റിലും പാന്റിൻ്റെ ഉള്ളിലും കയറ്റും എന്നിട്ട് മനുഷ്യരൂപം പോലെ ആക്കും പ്രതിമ പോലെ അപ്പോൾ എന്നിട്ട് വയലിൽ കൊണ്ടുവെക്കും ഈ എന്താ പറയുക പിന്നെ പക്ഷി തത്ത കിളികളൊക്കെ വന്നിട്ട് നെൽക്കതിര് പതിരിങ്ങനെ കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യും അത് എന്താ പറയുക നമ്മള് കൂടിയിട്ടെ ഉള്ളൂ പണ്ട് അച്ഛൻ്റെ അച്ഛാച്ചൻ്റെ ഒക്കെക്കൂടെ വയലിൽ പോകുമ്പോൾ അവര് ഉണ്ടാക്കാൻ നേരത്ത് അപ്പോൾ ഇങ്ങനെ മീശയൊക്കെ വരയ്ക്കും ചട്ടിക്കകത്ത് ഒരു മനുഷ്യരൂപം പോലെ എന്നിട്ട് ഒരു ചിലപ്പോൾ ഒരു കുടയൊക്കെ ചൂടി നിൽക്കുന്ന പോലെയോ അല്ലെങ്കിൽ കൈ ഇങ്ങനെ നീട്ടി വെച്ച് അതിനകത്ത് എന്തെങ്കിലും വെച്ച് നിൽക്കണ പോലെയൊക്കെ ആയിരിക്കും അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഉണ്ടാക്കാൻ കൂടിയിട്ടുണ്ട് ഒറ്റയ്ക്കല്ല എന്നിട്ട് എല്ലാരുടേയും കൂടെ കൂടിയിട്ടുണ്ട് അല്ലാതെ കലാരൂപം ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ